ആ ഹലോ ണയൻറ്റി എയ്റ്റി നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റ് കല്പറ്റയാണ്

ഓക്കെ ഓക്കെ ആ എത്ര പോർഷൻ വേണ്ടിവരും പത്തു പോർഷനാ

ഒര് ഒരു പോർഷൻന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു പോർഷൻന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നാലുപേർക്ക് കഴിക്കുന്ന പോർഷനാണ് വരുക ആ ഓക്കേ അതിനു നമുക്ക് നാനൂറ്റിപ്പത്തു രൂപ ചാർജാകും നാനൂറ്റിപ്പത്തു രൂപാ ഇത് ചിക്കൻ ചിക്കൻ സെപ്പറേറ്റ് വരും ആ ചിക്കൻ സെപ്പറേറ്റ് വരുന്നതാണ് ചിക്കൻന്ന് വെച്ചാൽ ഏതുരീതിലാണ് ഉദ്ദേശിച്ചത് ചിക്കൻ മസാലയുണ്ട് പെരട്ടുണ്ട് പെര ചില്ലിയായിട്ടുള്ളതോ ഇത് നമുക്കൊരു ഇതിൻ്റെ കൂടി നമ്മൾ പുതിയ നമ്മുടെ ഒരൈറ്റമുണ്ട് നമ്മള് തേങ്ങാ അരച്ചുചേർത്തിട്ടുള്ള നല്ല വറുത്തു തേങ്ങാ വറുത്തരച്ചിട്ടുള്ള ഒരൈറ്റമാണ് സാധാരണ പിടീൻ്റെ കൂടെ നമ്മള് കുറച്ചു ചാറുപോലെ വരുന്നതാണ് ഒരുപാട് ഗ്രേവിയുണ്ടാവില്ല ചെറിയൊരു ഗ്രേവി ടൈപ്പ് വരുന്നതാണ് ട്രൈ ചെയ്തിട്ടുണ്ടാ ഇതിനുമുമ്പ് ഇല്ലാ അത് നമുക്ക് ആ ചില്ലി ചില്ലീൻ്റെ തന്നെ റേറ്റേ വരുന്നുള്ളൂ ചില്ലീൻ്റെ തന്നെ റേറ്റേ വരുന്നുള്ളൂ ഒരു ഫുൾപോർഷനു ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത്

ഒരു ഫുൾപോ ഒരു ഫുൾ പോർഷന്നു പറഞ്ഞാൽ നാലുപേർക്കൊക്കെ കഴിക്കാം കുഴപ്പമില്ല നാലുപേർ ആ ആ എത്തും എത്തും നമുക്കൊരു നമുക്കിപ്പൊരു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു രണ്ടുമണിക്കൂറിനുള്ളിൽ ഡെലിവെറി ചെയ്യാൻ പറ്റും

പത്ത് പോർഷനല്ലേ പറഞ്ഞത് കുടിക്കാനായിട്ട് വേറെ എന്തേലും വേണോ പെപ്സി സെവൻ അപ് കോള അങ്ങനെന്തേലും വേണോ മീനങ്ങാടിയാണല്ലേ ഓ അത് നമുക്ക് പിന്നെ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പ്രീ ഓർഡർ ചെയ്യേണ്ടിവരും എപ്പൊത്തേക്കാ വേണ്ടീരുന്നത് ആ ആ ആ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമുക്കുചെയ്യാം ചെയ്യാം പത്തു പോർഷനല്ലേ പറഞ്ഞത് ഓക്കെ ഓക്കെ ഡ്രിങ്ക്സ് വേറെന്തേലും വേണോ അതിൻ്റെകൂടെ വേറെന്തേലും ഐറ്റം വേറൊന്നും വേണ്ട ഒന്നും വേണ്ട പെപ്സി കോള ഒന്നുംവേണ്ട ഓക്കെ ഓക്കെ ഓക്കെ നാളെയൊരു നാളെയൊരു ഒരു പന്ത്രണ്ടുമണിയോടുകൂടി വിളിക്കും എക്സ്ബില്ല് അതായത് ഡെലിവറിക്ക് വരുന്ന ആള് നിങ്ങളെ വിളിക്കും അന്നേരം ഫോണെടുത്താൽ മതി കറക്റ്റ് പ്രോപ്പർ സ്ഥലം പ്രോപ്പർ സ്ഥലത്ത് നമ്മള് നിങ്ങളെത്തിക്കഴിഞ്ഞ് നിങ്ങളെ വിളിക്കാം അപ്പോൾ പ്രോപ്പർ സ്ഥലം അവരോട് പറഞ്ഞാൽ മതി ഓക്കെ ശരി എന്നാൽ ഓക്കെ